സംസ്ഥാനത്തിലെ ഗതാഗത ഗുണനിലവാരം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഇത്രയും മോശം അനുഭവം വേറെ സംസ്ഥാനത്ത് നിന്ന് ലഭിച്ചിട്ടില്ല ഇവിടെ പകുതി റോഡുകളില്ല ഉള്ള റോഡിലാണെങ്കിൽ മുഴുവൻ കുഴി സമാധാനത്തോടെ ഒന്ന് വണ്ടി എടുത്ത് പുറത്തു പോവാൻ ഇവിടെ നടക്കില്ല വണ്ടി എടുത്ത് പുറത്തു പോയി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിക്കാരുടെ ആക്രമണം സഹിക്കണം ബൈക്കുകാര് കുഴീ ടോൾ പെട്രോളിൻ്റെ പൈസ ഒരു വണ്ടി വാങ്ങിയത് വീട്ടിലിട്ടു വെയ്ക്കണ്ട അവസ്ഥയാണ് ഒരു വണ്ടി വാങ്ങി അതില് പെട്രോൾ ഒഴിക്കണമെങ്കിൽ വേറെ ലോൺ എടുക്കേണ്ട അവസ്ഥയാണ് ഇവിടെ കേരളത്തിൽ ഈ ഒരു വണ്ടി വാങ്ങുമ്പോൾ അതിൻ്റെതായ റോഡ് ടാക്സ് വാങ്ങണുണ്ട് അതിൻ്റെ ഇരട്ടി റോഡ് ടാക്സ് വാങ്ങണുണ്ട് എന്നിട്ടു വണ്ടി ഓടിയ്ക്കാൻ ഇവിടെ റോഡില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ ബൈക്കുകാർക്ക് രണ്ട് ഹെൽമെറ്റ് ആ അത് പിന്നേം കുഴപ്പില്ല അത് നല്ലൊരു തീരുമാനമാണ് പക്ഷേ ഈ ഹൈ വേ കൂടെ അറുപതു കിലോ മീറ്റർ സ്പീഡ് എന്താ ചെയ്യുക ഓരോ വണ്ടികൾ നൂറ് നൂറ്റിപ്പത്ത് പോവുമ്പോൾ ബൈക്കുകാർ ഇവിടെ അറുപതിൽ പോയിക്കഴിഞ്ഞാൽ അതൊരു ട്രാഫിക് ജാം ആക്കുന്ന ഒരു ഒരു ബോധമില്ലേ ഇവർക്കൊന്നും എങ്ങനെ ഈ ഈ നിയമമൊക്കെ ഇങ്ങനെയുണ്ടാക്കണെ പിന്നെ പ്രൈവറ്റ് ബസ്സിനൊക്കെ വെള്ള പെയിന്റ് അടിയ്ക്കണം അത് അതെന്ത് ലോജിക്ക് ആന്ന് ഇതുവരെ അറിയില്ല വെള്ള പെയിന്റ് അടിച്ചാൽ വണ്ടി ഇടിക്കില്ലായെന്നാണോ എന്ത് കൊണ്ടാണത് എന്ന് എനിക്കറിയില്ല പിന്നെ ഉള്ളത് എന്തിനാ ഈ കേരളത്തില് നാല് വിമാനത്താവളം ഒരു മൂന്നെണ്ണമോ രണ്ടെണ്ണമോ ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇത് നാല് വിമാനത്താവളം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇണിയും വിമാനത്താവളം ഉണ്ടാക്കാൻ പദ്ധതി ഉണ്ട് എന്തിനാ ഇത്രയും പൈസ ഞങ്ങളുടെ ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയിൽ നിന്ന് ടാക്സ് വാങ്ങി ഇത്രയും ധൂർത്തടിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല എന്നാൽ മനുഷ്യൻമാർക്ക് ഉപകാരമുള്ള വല്ലതും ചെയ്യുമോ അതും ഇല്ല ഈ വണ്ടി ആശിച്ച് വാങ്ങിയിട്ട് അതിൽ ഒരു സ്റ്റിക്കർ പോലും അടിയ്ക്കാൻ വിടില്ല എന്നാൽ വണ്ടി ഓടിയ്ക്കാൻ റോഡില്ല പിന്നെ ഉള്ള ഒരു വഴിയാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയുടെ അവസ്ഥ അറിയാമല്ലോ അത് ഫുൾ നഷ്ടത്തിലാണ് വണ്ടി ഒന്നും സർവീസ് ചെയ്യലില്ല ഓടണ വണ്ടിയിൽ നിന്ന് ടയർ ഒക്കെ ഊരി പോവണു എന്താ ഇതിലൊന്നും വിശ്വസിച്ച് പോവാനും പറ്റില്ല പിന്നെയുള്ളത് ട്രെയിൻ ട്രെയിനെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഉള്ളിൽക്കൂടെ ഓടണ ട്രെയിൻ നല്ല നല്ല ട്രെയിനാ കേരളത്തിൻ്റെ പുറത്തുപോയി കഴിഞ്ഞാൽ ഇത്രയും കച്ചറ വേറെ എവിടെയും ഇല്ല കേരളത്തിന് പുറത്ത് പോവണമെങ്കിൽ വിമാനത്തിൽ പോവുകയാണ് നല്ലത് തമിഴ്നാടങ്ങട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വൃത്തിയും ഇല്ല ഒന്നും ഇല്ല ബുക്ക് ചെയ്തിട്ടൊക്കെ പോയാലും ബുക്ക് ചെയ്യാത്ത ആൾക്കാര് നമ്മുടെ സീറ്റിലിരിയ്ക്കും ചോദിച്ച് കഴിഞ്ഞാൽ അടിയുംകിട്ടും വിമാനം ഇപ്പോൾ വിലയൊക്കെ താഴ്ന്ന് വരുന്നുണ്ട് അപ്പോൾ വിമാനം ഒരു നല്ല ചോയിസ് ആണ് പക്ഷേ ഈ കേരളത്തില് ഇത്രയും വിമാനത്താവളത്തിൻ്റെ ഒന്നും ആവശ്യം ഇല്ലായെന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ പെട്രോളിൻ്റെ വില ഓരോ ദിവസവും രണ്ട് രൂപയും ഒരു രൂപയും ഒക്കെ കൂടി കൂടി ഇപ്പോൾ ഒരു നൂറ്റമ്പത് രൂപ ആയിട്ടുണ്ട് ഒരു ലിറ്റർ പെട്രോളിന് പണ്ടൊക്കെ എഴുപത് രൂപയ്ക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ദൂരം പോയിരുന്നു ഇപ്പോൾ ഉള്ള വണ്ടികളാണെങ്കിൽ ഒരു ഓടിയ്ക്കാനൊരു സുഖം ഇല്ല പിന്നെയുള്ളത് ഇലക്ട്രിക് വണ്ടികൾ ഇലക്ട്രിക് വണ്ടി വാങ്ങാൻ ഗവൺമെൻറ് ഇഷ്ടം പോലെ പൈസ തരും അതാണ് ഇതാണ് കറൻറ് ലോഡ് ഉണ്ടെന്നൊക്കെ പറയും ഈ പുക സാദാ വണ്ടികള് മാലിന്യമുണ്ടാക്കുന്നുവെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇലക്ട്രിക്ക് വണ്ടി ഈ ഇലക്ട്രിക് വണ്ടികളുടെ ബാറ്ററി കേട് വന്നാൽ ഈ ബാറ്ററി എന്തു ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല അത് പൊടിച്ച് വല്ല മണ്ണിന്റെയടിയിലും ഇടുക എന്നല്ലാതെ ബാറ്ററി കൊണ്ട് ഒരുപയോഗവും ഇല്ല ബാറ്ററി നേരെയാക്കാനും പറ്റില്ല പിന്നെ ഈ വണ്ടി ആയാൽ വെള്ളത്തിൽക്കൂടെ വെള്ളം കയറും ഇലക്ട്രിക് വണ്ടിയില് വെള്ളം കയറിയാൽ ഇലക്ട്രിസിറ്റിയും വെള്ളവും കയറി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ എന്താണ് അവസ്ഥയെന്ന് അങ്ങനെ ഒക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഈ കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ പെട്രോളിൻ്റെ വില കുറയും അപ്പോൾ പെട്രോളൊക്കെ അടിയ്ക്കണമെങ്കിൽ തമിഴ്നാട് ബോർഡറിലുള്ളവർക്കാണ് സുഖം അവിടെ പോയാൽ പെട്രോൾ വില കുറഞ്ഞു കിട്ടും പെട്രോൾ അടിക്കുക തിരിച്ച് കേരളത്തിലേയ്ക്ക് വരിക പിന്നെ ഈ എം വി ഡിക്കാരു അതിക്രമം അത് ഇത്തിരി ക്രൂരത ആണ് ഈ ഒരു സ്റ്റിക്കറടിച്ചു പറഞ്ഞിട്ടൊന്നും വണ്ടിയ്ക്ക് ഒന്നും പറ്റില്ല ഈ പ്രൈവറ്റ് ബസ്സുകള് അല്ലെങ്കിലേ നഷ്ടത്തിലാ ഓടണത് അവർ ഈ സ്റ്റിക്കർ വെള്ള പെയിന്റ് അടിക്കണതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല അത് അതും ശരിയല്ലായെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരിത്